ഇന്ത്യയിലെ ഏറ്റവും കണ്ടിരിക്കേണ്ട ചില കാര്യങ്ങളൊക്കെയായിട്ട് ഉള്ള അത്തരം കാര്യങ്ങളെയായിരിക്കും ഞാൻ കൂടുതലായിട്ട് പകർത്താനായിട്ട് ആഗ്രഹിക്കുന്നത് അതായത് ഏറ്റവും കൂടുതൽ പുറത്തേക്ക് ഇന്ത്യയുടെ പുറത്തേക്കുള്ള ആളുകള് കണ്ടിട്ടില്ലാത്ത ചില കാര്യങ്ങളെ ഇവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങള് സാംസ്കാരിക മേഖലകൾ അങ്ങനെ തുടങ്ങിയ ഒരു ഇന്ത്യൻ സംസ്കാരം എത്രത്തോളം ഒരു ഇവിടെ ഇന്ത്യ സംസ്കാരം എത്രത്തോളം ഇവിടെ ചുറ്റിപ്പറ്റി നിലനിൽക്കുന്നുണ്ട് എന്ന് ഇന്ത്യയിലെ ഇന്ത്യയ്ക്ക് പുറത്തുള്ള മറ്റു ജനങ്ങളിലേക്ക് ഒരു ബോധം സൃഷ്ടിക്കാനുള്ള

നോക്കുക അതുപോലെ തന്നെ ഇന്ത്യൻ അതിർത്തി പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും കാണാനാഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങള് അപ്പം താജ്മഹാലാണേലും പ്രണയത്തിൻ്റെ ഒരു സൂചകമായിട്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതാണ് ആ ഒരു കാര്യങ്ങള് പിന്നെ ഇവിടുത്തെ ഒരു ഇന്ത്യൻ വിദ്യാഭ്യാസ രീതി ഇന്ത്യൻ സംസ്കാരം ഇവിടേതായ പുറം പുറത്തെ ആളുകൾക്ക് അറിയില്ലാത്ത ഒരുപാട് കാര്യങ്ങള് നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇന്ത്യയിലെ അറിയാനായിട്ട് ഇന്ത്യയോട് കൂടുതൽ അടുക്കുന്ന രീതിയിലുള്ള ഇന്ത്യടേതായ ഒരു ഭൂപ്രകൃതി സംസ്കാരവുമൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തുന്ന രീതിയിലുള്ള ചിത്രങ്ങള് പകർത്തെടുക്കാനാണ് ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ഭൂപകൃതിയുടെ മനോഹാരിത ഇവിടുത്തെ സ് കിളികളുടെയും ശബ്ദങ്ങളുടെയും നാദങ്ങള് അതുപോലെ അത്രമേൽ മനോഹരമായിട്ടുള്ള ഓരോ കാര്യങ്ങളും ഫോട്ടോയിൽ പകർത്തിയെടുത്ത് മറ്റുള്ളവർക്കും കൂടെ ഇന്ത്യയെക്കുറിച്ച് കൂടുതലായിട്ട് അറിവ് ലഭിക്കുന്ന ഒര് രീതിയിലുള്ള ഒരു ഒരു ഒരു ഫോട്ടോഗ്രാഫിയാണ് പകർത്തുക